കണ്ണൂർ ജില്ലാ അറിയപ്പെടുന്നത് തന്നെ വിനോദ പരിപാടികളും പ്രവർത്തന ഉല്ലാസ പ്രവർത്തനങ്ങളുടെയും പേരിലാണ് അതിൽ നിന്നും ആദ്യമായ് എനിക്ക് പറയാൻ ആഗ്രഹിക്കുന്നത് പറശ്ശിനിക്കടവ് മുത്തപ്പൻ അമ്പലത്തെ കുറിച്ചിട്ടാണ് അവിടെ എത്തിച്ചേരുന്ന എല്ലാവർക്കും സൗജന്യമായി ചായയും അതിൻ്റെ കൂടെ തന്നെ അവിടുത്തെ ഒരു പ്രത്യേക നിവേദ്യമായ കടിയും ലഭിക്കുന്നതാണ് അവിടുത്തെ പറശ്ശിനിക്കടവ് മുത്തപ്പൻ അമ്പലത്തിൽ പ്രത്യേകത എന്താണെന്നു പറയുകയാണെങ്കിൽ അവിടെ എല്ലായിടത്തും നമുക്ക് നായകളെ കാണാൻ സാധിക്കുന്നതാണ് പറശ്ശിനിക്കടവിൽ തന്നെ സ്നേക്ക് പാർക്ക് ഉണ്ട് ഈ സ്നേക്ക് പാർക്കിൽ പ്രവേശനം സൗജന്യമല്ല ചെറിയൊരു ചാർജ് ഗവൺമെൻറ് ഈടാക്കുന്നുണ്ട് സ്നേക്ക് പാർക്കിൽ പലതരം പാമ്പുകളും പക്ഷികളും ഇവയൊക്കെ ഉണ്ട് അടുത്തതായി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് മാട്ടൂൽ പെറ്റ് സ്റ്റേഷനെ കുറിച്ചിട്ടാണ് ഇത് കണ്ണൂരിൻ്റെ വടക്ക് ഭാഗത്താണ് സ്ഥിതി ചെയ്യുന്നത് ഇവിടെ ഇത് പുതിയതായി കണ്ണൂരിൽ തുടങ്ങിയ ഒരു വിനോദ കേന്ദ്രമാണ് ഇവിടെ പലതരം പെറ്റ്സിൻ്റെയും പലതരം മൃഗങ്ങളുടെയും പോറ്റൽ പോറ്റു മൃഗങ്ങളുടെ സങ്കേ സങ്കേതമാണ് ഇവിടെയുള്ളത് അടുത്തതായി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് പയ്യാമ്പലം ബീച്ചിനെ കുറിച്ചിട്ടാണ് ഈ അടുത്ത കാലത്തായി പയ്യാമ്പലം ബീച്ച് വളരെ അധികം വികസന പ്രവർത്തങ്ങളിൽ ഏർപ്പെടുത്തിയിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ വിനോദ സഞ്ചാരികളുടെ എണ്ണം വളരെ ഏറെ കൂടിയിരിക്കുന്നുമുണ്ട് നമ്മുടെ സിനിമ തീയേറ്ററിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ സവിത ഫിലിം സിറ്റി ആണ് എനിക്ക് ആദ്യമായി ഓർമ്മ വരുന്നത് സവിത ഫിലിം സിറ്റി നാല് തീയേറ്റർ സമുച്ഛയങ്ങൾ ഉൾപ്പെടുന്ന ഒരു ഫിലിം സിറ്റി ആണ് ഒരേ സമയം നാല് ചിത്രങ്ങൾ ഇവിടെ പ്രദർശിനി പ്രദർശിപ്പിക്കുന്നുണ്ട് അടുത്തതായി എനിക്ക് ഓർമ്മ വരുന്നത് ചാൾ ബീച്ചിനെ കുറിച്ചിട്ടാണ് ഇവിടെ ന്യൂ ഇയർ സമയത്ത് പുതുവർഷത്തിനെ വരവേൽക്കാൻ വേണ്ടി ന്യൂ ഇയർ പരിപാടികൾ ഇവർ ഈ ഡിസംബർ ഇരുപത്തി ഒന്നു മുതൽ ജനുവരി നാലു വരെ സംഘടിപ്പിക്കാറുണ്ട് അതിൻ്റെ പ്രവേശനം ചെറിയൊരു ഫീസ് ഈടാക്കിയിട്ടാണ് നൽകുന്നത് പിന്നെ എനിക്ക് എടുത്ത് പറയാനുള്ളത് പൈതൽ മലയെ കുറിച്ചിട്ടാണ് പൈതൽ മല നമ്മുടെ കേരളത്തിൻെയും കണ്ണൂരിൻെയും ഉയർന്ന ഒരു ആൾട്ടിറ്റ്യൂഡ് പോയിന്റിലാണ് സ്ഥിതി ചെയ്യുന്നത് പൈതൽ മലയിലെ എൻട്രി ഒരു ചെറിയൊരു തുക ഗവൺമെൻറ് ഫീ ആയി ഈടാക്കുന്നുണ്ട് അതൊരു ട്രക്കിംഗ് പോയിൻറ് ആണ് പിന്നെ എനിക്ക് ഓർമ്മ വരുന്നത് കയള് റെസ്റ്റോറന്റിലെ ഹൗസ് ബോട്ടിനെ കുറിച്ചിട്ടാണ് അതിനു വലിയൊരു ചാർജ് ആണ് ഗവൺ അവർ ഈടാക്കുന്നത് പക്ഷെ അത് ഒരു ദിവസത്തെ ഫു മുഴുവൻ ഭക്ഷണവും വിനോദ പ്രവർത്തനങ്ങളും നൽകുന്ന ഒരു ആക്ടിവിറ്റി ആണ് ഹൗസ് ബോട്ട്